ആദ്യം നമുക്ക് ഇവിടെ അവൈലബിളായിട്ടുണ്ടായിരുന്നത് ടെലിഫോണായിരുന്നു അതെല്ലാവർക്കും വീട്ടിലൊരു ടെലെഫോണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭാഗ്യം അതെല്ലാവർക്കും കൂടെ കോമണായിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് പിന്നെ നോക്കിയേടെ പഴയ കീ പാഡ് സെറ്റ് ഫോണൊക്കെ വരാൻ തുടങ്ങി അതേകദേശം ഒരു വീട്ടിലാൺലും ഒരൊണ്ണമൊക്കെ കാണാത്തൊള്ളായിരുന്നു അതും പോയി കാലഘട്ടം ഒരുപാട് വളർന്നു ടെക്നോളജി അതിലേറെ വളർന്നു ആൾക്കാർ നമ്മുടെ സൊസൈറ്റി ഒരുപാട് ഡെവലപ്പായി അതോടനുസരിച്ച് കുറെ സ്മാർട്ട് ഫോണുകൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് രംഗത്തേക്കിറങ്ങി ഒരുപാട് വെറൈറ്റി ഓഫ് സ്മാർട്ട് ഫോൺസിറങ്ങി അതിന് എല്ലാ ഫോണിനും പല പല ആക്ടിവിറ്റീസും പല റേറ്റും പല നെറ്റ് വർക്ക് കാര്യങ്ങളും എല്ലാം തന്നെ വേറെയാണ് ക്യാമറേടെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും വേറെ വേറെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫോണിൻ്റെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ പ്രായമായവർ വരെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവരുടെ കയ്യിൽ വരെ സ്മാർട്ട് ഫോണുള്ള കാലമാണ് പണ്ടൊക്കെ ഇപ്പം പണ്ടെന്ന് പറയുമ്പോൾ പുറത്ത് ജോലി ചെയ്യുന്നവരുടെ കയ്യിലക്കെ ഒരു കീ പാഡ് സെറ്റ് ഫോണുണ്ടെങ്കിൽ തന്നെ ഭാഗ്യം അല്ലെങ്കിൽ ഒരു ലാൻഡ് ഫോണൊള്ളതാണ് ഒരു വീട്ടിലെല്ലാവരും അതാണ് യൂസ് ചെയ്യുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ നെറ്റങ്ങനെ ഇപ്പം നെറ്റ് ചാർജ് ചെയ്താൽ തന്നെ പണ്ട് ഫോണിലൊന്നും അങ്ങനെ നെറ്റങ്ങനെ അവൈലബിളൊന്നും ആകത്തില്ലായിരുന്നു എല്ലായിടത്തും ഇപ്പോൾന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫോർ ജിയുണ്ട് ഫൈവ് ജിയുണ്ട് അത് പല സിമ്മുണ്ട് ജിയോ വോഡാഫോൺ ബി എസ് എൻ എൽ അങ്ങനെ പലതിൻറ്റെയും എല്ലാത്തിനും നമുക്ക് നെറ്റ് ചാ ചാർജ് ചെയ്യാനുള്ള അവസരമുണ്ടിപ്പോൾ എൻ്റെ സിമ്മെന്ന് പറയുന്നത് ജിയോ ആണ് ഒരു മാസം ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാ മുപ്പത്തൊൻപത് രൂപയ്ക്കാണ് ഞാൻ റീചാർജ് ചെയ്യണത് ഒന്നര ജി ബി ഒരു ദിവസം കിട്ടും അതല്ലാ അതുപോലെ തന്നെ കുറെ ജിയോക്ക് തന്നെ ഒരുപാട് നമുക്ക് ഓപ്ഷൻസൊണ്ട് റീചാർജ് ചെയ്യാൻ അപ്പം കൂടുതൽ രൂപക്ക് റീചാർജ് ചെയ്യുമ്പം അതിനനുസരിച്ച് ഇത്ര ജി ബി ഒരു ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്കാണ് റീചാർജ് ചെയ്യുന്നൊണ്ടന്നൊണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് ജി ബി നമുക്ക് യൂസ് ചെയ്യായിരിക്കും അതുപോലെ തന്നെ അത് കൂടലിപ്പം ഇത്ര മാസത്തെ രണ്ട് മൂന്ന് നാല് മാസത്തേക്ക് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും അങ്ങനേം നമുക്കിപ്പം അവൈലബിളാണ് ജിയോക്ക് തന്നെ ഒരുപാട് ഓപ്ഷൻസൊണ്ട് റീചാർജ് ചെയ്യാൻ അതുപോലെന്നെ എല്ലാ സിമ്മിനുവൊണ്ട് റീചാർജ് ചെയ്യാനായിട്ട് ഓരോ ഓപ്ഷൻസ് എൻ്റെ സിംന്ന് പറഞ്ഞാൽ ജിയോ ആണ് പക്ഷേ അത് എല്ലാ സ്ഥലത്തും റേയ്ഞ്ച് കിട്ടത്തില്ല ഇപ്പം അതുകൊണ്ട് തന്നെ എല്ലാ എനിക്ക് തോന്നുന്നു വോഡാഫോണക്കെ എല്ലായിടത്തും റേയ്ഞ്ച് കിട്ടുവെന്ന് അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പം വിപണിയിലൊരുപാട് സിമ്മുകളും ഫോണുകളും നമ്മൾ നമ്മൾ തന്നെ അറിയാത്ത ഒരുപാട് വെറൈറ്റി ഓഫ് കമ്പനിയുടെ ഫോൺസും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം നമ്മുടെ ടെക്നോളജിയൊക്കെ ഒരുപാട് വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഫോണൊണ്ട് ഇപ്പം ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്കും മെ ബി സ്മാർട്ട് ഫോൺ കാണും പിന്നെ പോരാത്തതിന് ഒരു ടെലെഫോണും കൂടി കാണും അപ്പം ആർക്കും നെറ്റിനൊന്നും ഒരു കുറവും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാവർക്കും വീട്ടിൽ തന്നെ വൈ ഫൈ കണക്ഷൻസൊക്കെ എല്ലാവർക്കും അവൈലബിളാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഫോണ് ഉപയോഗിക്കുന്നതിനോ നെറ്റുപയോഗിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല ഇപ്പോൾ കൊച്ച് കുട്ടികൾ വരെ ഫോൺ യൂസ് ചെയ്യണ്ണ്ട് ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അറിയാം പ്രായമായവർക്കും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ അറിയാം ഒരുപാട് കാലം ഡെവലപ്പാകുന്നതനുസരിച്ച് ആൾക്കാരും ഡെവലപ്പായി കൊണ്ടിരിക്കയാണ്